ഹലോ അതെ ഇതാരാണ്

ആ എന്താണ് പറയൂ ആ ഉറക്കം കുറവാണോ ഇയാൾക്ക് ആ കണ്ണാടി യൂസ് ചെയ്യുന്നുണ്ടോ ആ ഓക്കെ ഇത് നമ്മുടെ ആയുർവേദത്തിൻ്റെയിതിന് വേണ്ടിയിട്ടൊരു മരുന്നുണ്ട് അത് ഇയാള് യൂസ് ചെയ്യണമെങ്കിൽ എന്നെ ഒന്ന് വന്ന് കാണണം കേട്ടോ ആ ഈ ആയുർവേദത്തിൻ്റെയൊരു മരുന്നൊരു മൂന്ന് മാസം അത് കഴിക്കണം ആ പിന്നെ പഥ്യം നോക്കണം കേട്ടോ അതിന് അത് കഴിക്കുകയാണെങ്കിൽ ഇയാള് പഥ്യം നോക്കണം

ആ അതിപ്പം ഒരുപാട് പേർക്കിങ്ങനെ കണ്ട് വരുന്നുണ്ട് ആ ഡാർക്ക് ആയിട്ടുള്ള കറുപ്പ് നിറം വരുന്നുണ്ടല്ലെ ആ അത് സാധാരണ ഇങ്ങനെ ഉറക്ക കുറവ് കണ്ണാടി യൂസ് ചെയ്യുന്നവർക്ക് ഒരുപാട് പേർക്കിങ്ങനെ വരുന്നുണ്ട് ഇപ്പം ഒരുപാടിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിപ്പോൾ ആണല്ലേ ഇയാള് ഇംഗ്ലീഷ് മരുന്നാണല്ലേ യൂസ് ചെയ്യുന്നത് ആ ഹാ ആ നമ്മുടെ ആയുർവേദത്തിലിതിനു വേണ്ടിയിട്ടൊരു മ ഓയിൽമെൻറ്റുമുണ്ട് പിന്നെ കുറച്ച് മെഡിസിൻസൊക്കെയുണ്ട് അത് മൂന്ന് മാസം യൂസ് ചെയ്യുവാണെങ്കിൽ അത് പൂർണമായിട്ടും മാറും ആ ഇയാള് എവിടുന്നാണ് വിളിക്കുന്നത് ആട്ടുകാലല്ലേ ആ ആട്ടുകാലിലെ രണ്ട് മൂന്ന് പേര് എൻ്റെയിവിടെ വരുന്നുണ്ട്

ആ ആ അപ്പോൾ ഇയാള് വന്നാൽ ഞാൻ ഞാനുള്ള ദിവസങ്ങളില് വന്നാൽ നമുക്ക് നോക്കാം ആ ഞാൻ തിങ്കൾ ബുധൻ വെള്ളി കാണും

ആ എട്ട് മണിക്ക് വന്നെടുത്താൽ മതി രാവിലെ ഞാൻ ഉച്ച വരയേ കാണത്തുള്ളു ആ വൈകിട്ട് വീട്ടിലായിരിക്കും ആ ആ വീട്ടില് വന്നാലും മതി എന്നെ വിളിച്ചിട്ട് വരണം കേട്ടോ ആ തിരക്കിന് അത് പറയാൻ പറ്റത്തില്ല തിരക്ക് കാണും ആ അത് നമുക്ക് ഓക്കെയാക്കാം ഇയാള് വന്നാൽ മതി ആ ഓക്കേ ശരി